എനിക്ക് ഈ ഗ്രാമങ്ങളിൽ തന്നെ താമസിക്കാനാണ് ഇഷ്ടം ഞാൻ ജനിച്ചുവളർന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനും ഏറ്റവും സന്തോഷവും അതിനുപരി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇവിടെ ജീവിക്കാനാണ് ഇവിടെയാണെങ്കിൽ ശുദ്ധമായ വായുവും വെള്ളവും എനിക്ക് ലഭിക്കും കൂടാതെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഗ്രാമങ്ങളിലാണുള്ളത് എൻ്റെ ഗ്രാമം ചെറിയൊരു ഗ്രാമമാണെങ്കിലും ഇവിടെ പുഴകളുണ്ട് കിളികൾ പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകുക എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഞാൻ അനുഭവിക്കുന്നുള്ളു ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇവിടെ തൃപ്തനാണ് ഇതൊന്നും നഗരങ്ങളിൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല അതിനാൽത്തന്നെ എനിക്കിവിടെ തുടരാനാണ് ഏറ്റവും ഇഷ്ടം